എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടി വി ഷോ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരു ചിരി ബംബർ ചിരിയാണ് അതു കാണുമ്പം നമ്മൾക്ക് എന്തോ എനിക്ക് ഒരുപാട് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുന്നു ഒരു മണിക്കൂറ് സമയം പോകുന്നതേ അറിയുന്നില്ല ഒരുപാട് എൻജോയ് ചെയ്യുന്നു മനസ്സറിഞ്ഞ് ചിരിച്ച് നമ്മുടെ മനസ്സിലെ സ്ട്രെയിനുകളും സ്ട്രെസ്സുകളും എല്ലാം മാറ്റി വെച്ച് ചിരിക്കാൻ പറ്റുന്നു കൂടാതെ ഒരുപാട് പേരുടെ കഴിവുകൾ കുഞ്ഞി കുട്ടികൾ തൊട്ട് ഒരു പ്രായമുള്ളവർ വരെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാരുടെയും കഴിവുകൾ ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നും അങ്ങനെ ഓരോന്ന് കാണാൻ പറ്റുന്നു പിന്നെ ജഡ്ജ്മെൻ്റ് ഒക്കെയാണെങ്കിലും ഓരോരുത്തർ അവർ പറയുന്ന രീതികളും എല്ലാം കേട്ട് നമ്മുടെ മനസ്സിന് അതൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു അതുകൊണ്ട് എനിക്ക് ആ ഷോ ഭയങ്കര ഇഷ്ടമാണ്